ഇ ബുക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ബുക്ക് അത് നമ്മള് ഇപ്പോൾ ഈ കാലഘട്ടത്തില് ആരും ലൈബ്രറിയിലോട്ട് പോയിട്ടോ അവിടെ നിന്ന് ആരും ബുക്ക് മേടിക്കുന്നില്ല അപ്പോൾ എല്ലാവരും മൊബൈലിലൂടെ ഇ ബുക്ക് വഴിയാണ് എല്ലാവരും ബുക്ക് മേടിക്കുന്നതും നോട്സ് നോക്കുന്നതും ഇതൊക്കെ നമ്മുടെ കണ്ണിന് പ്രശ്നമാകുകയും പിന്നെ നമ്മുടെ കണ്ണ് കമ്മ്യൂണിക്കേഷൻ സ്ക്കില്ല് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇത് മൂലം അതുകൊണ്ട് ഇത് കഴിവതും ഒഴിവാക്കാൻ നോക്കുക